ഹലോ ഞാൻ ഹാഷറാണ് എൻ്റെ ചിക്കാഗോയിൽ നിന്നുള്ള ഹൂസ്റ്റണിലേക്കുള്ള ഇന്ന് വൈകിട്ട് ആറ് മണിക്കുള്ള ടിക്കറ്റ് റദ്ദാക്കേണ്ടതായി വന്നിട്ടുണ്ട് കാരണം എനിക്ക് ഹൂസ്റ്റണിൽ ഉണ്ടാകേണ്ടിയിരുന്ന ബിസിനസ്സ് മീറ്റിംഗ് താൽക്കാലികമായി പുനർക്രമീകരിച്ചതിനാൽ യാത്രയിപ്പോൾ എനിക്ക് അത്യാവശ്യമില്ല അതിനാലാണ് ഞാൻ റദ്ദാക്കുന്നത് എൻ്റെ ടിക്കറ്റ് നമ്പർ എ എഫ് ഏഴ് എട്ട് ഒമ്പത് ആറ് അഞ്ച് നാല് മൂന്ന് ഒന്ന് രണ്ട് എന്നാണ് ഞാൻ റീഫണ്ടാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈയൊരു യാത്രയ്ക്കായി വരുന്ന ചെലവുകളുടെ റീഫണ്ടിന് വേണ്ടിയാണ് ഞാനാഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ബിസിനസ് മീറ്റിംഗ് അപ്രതീക്ഷിതമായി താൽക്കാലികമായി പുനർക്രമീകരിച്ചതിനാൽ ഈ മീറ്റ് രാവിലെ മാത്രമേ അറിഞ്ഞുള്ളൂ അതിനാൽ ഹൂസ്റ്റണിലേക്ക് പോകേണ്ട ആവശ്യം ഇനിയെനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് റദ്ദാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് റീഫണ്ട് ആണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമാകുമായിരുന്നു പക്ഷെ നിങ്ങൾ പറയുന്ന ക്രെഡിറ്റ് ഓപ്ഷനും എങ്ങനെയാണെന്നറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ വളരെയധികം ഉപകാരമാകുമായിരുന്നു ഞാൻ റീഫണ്ടിനാണ് പോകുന്നത് ഇപ്പോൾ കൂടുതൽ എനിക്ക് യാത്രാ പ്ലാനുകളൊന്നുമില്ല വളരെ നന്ദി താങ്ക് യൂ